നമ്മുടെ ആംബുലൻസെന്നു പറയുന്നത് നൂറ്റിയെട്ടാണ് നൂറ്റിയെട്ട് വിളിച്ചാൽ അവര് സ്ഥലം ചോദിക്കും അല്ലെങ്കിൽ ഏത് ഏരിയയെന്ന് ചോദിക്കും അത് ചോദിച്ചിട്ട് അവര് പറയും അയ്യോ അത് എങ്ങനെയാണ് ഇവിടെക്കൂടെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് നിങ്ങളുടെ എങ്ങനെയെങ്കിലും വേറെ വണ്ടി വിളിച്ച് ഇന്നിടത്ത് എത്തിച്ചാൽ ഞങ്ങള് കൊണ്ടുപോകാം എന്നുവരെ പറയാറുണ്ട് എങ്കിലും ചില ആംബുലൻസ് ഡ്രൈവർമാര് റിസ്ക്കെടുത്ത് നമ്മുടെയടുത്ത് വരാറുണ്ട് ചില ഡ്രൈവർമാര് എന്നാലും നമുക്കതൊരു ആംബുലൻസെന്നു പറയുന്നത് ഏത് സ്ഥലത്തും എപ്പോഴും എത്തിപ്പെടേണ്ട ഒരു പ്രചോരിറ്റിയുള്ള ഇതാണ് ആംബുലൻസ് ആംബുലൻസ് എന്നു പറഞ്ഞാല് അത്യാവശ്യ ഘട്ടങ്ങളിലാണ് നമ്മള് വിളിക്കുന്നത് ആരും ചിലപ്പോള് സ്ഥലത്തു പോലും ഇല്ലാത്ത സമയത്തായിരിക്കും ഒരു ആംബുലൻസിന്റെ അത്യാവശ്യം വരുന്നത് ആ സമയത്ത് വിളിച്ചാൽ അവര് ഇങ്ങനെയൊക്കെ പറയുമ്പോള് ഭയങ്കര ബുദ്ധിമുട്ട് ആയിട്ട് വരും പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ളത് നമ്മുടെ ചുമതലയാണ് ആംബുലൻസില് വരുന്നവർക്കും ആ രീതിയില് സംസാരിക്കാനുള്ള ഒരു ഇത് ഉണ്ടാവണം ഗ്രാമത്തിൽ ജീവിച്ചെന്നുംപറഞ്ഞ് ഞങ്ങളും മോശമുള്ള ആൾക്കാരല്ല ഞങ്ങള്ക്കും മറ്റ് ആൾക്കാര്ക്കൊപ്പം ജീവിച്ചുപോകാനുള്ള ആൾക്കാരാണ് അത് കാരണം ആംബുലൻസ് വിളിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ആംബുലൻസെന്നു പറയുന്നത് ഏത് വെല്ലുവിളിയെയും നേരിട്ട് ഞങ്ങളുടെ സ്ഥലത്ത് എത്തിക്കുക എന്നതാണ് എന്നാലും ചില മോശം വർത്തമാനം കേൾക്കുമ്പോള് എന്തിന് ഇങ്ങനെയുള്ള ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ടിരിക്കുന്നു എന്നു വരെ തോന്നാറുണ്ട് പക്ഷെ വിളിക്കുമ്പോൾ നല്ല രീതിയിൽ ഒരു സംഭാഷണം കേൾക്കുമ്പോൾ എത്ര ഇതായാലും നമുക്ക് ആ അയ്യോ അവര് എങ്ങനെ ആയാലും അവര് അങ്ങ് എത്തിപ്പെടും അല്ലെങ്കിൽ നമ്മളെ കൊണ്ടു പോകും എന്നു നമുക്ക് തോന്നണം ഇത് തിരിച്ച് മോശമായിട്ടുള്ള ഒരു മറുപടി നമുക്ക് ആ അതിൽ നിന്നു കിട്ടുമ്പോള് നമ്മളും ആകെ ടയേഡായതുപോലെ ആയി പോവും ഒന്നാമത് നമ്മള് അത്രയ്ക്ക് പെട്ടെന്ന് എത്തിക്കാനുള്ള കാര്യത്തിനായിരിക്കും ഇവരെ വിളിക്കുന്നത് തന്നെ അപ്പോള് അതേ പോലെ ഒരു തിരിച്ച് റീപ്ലേ കിട്ടിയില്ലെങ്കിൽ അതൊരു ഭയങ്കര മോശം കാര്യം പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഗ്രാമത്തിൽ ജീവിക്കുന്നവർക്കും ആശുപത്രിയിൽ എത്തിക്കേണ്ട ചുമതല ഈ ആംബുലന്സുകാർക്കുണ്ട് അവര് കറക്റ്റായിട്ട് നമ്മളെയും ആ നിങ്ങൾ പേടിക്കേണ്ട ഞങ്ങള് എത്തും എത്തിച്ചേരും നിങ്ങൾ വെയ്റ്റെയ്താല് മതി എന്നു പറയാനുള്ള ഒരു സന്മനസ്സ് എന്തായാലും അവര് കാണിക്കണം ഒരുപാട് കാര്യങ്ങള് അവർക്ക് പറഞ്ഞു കൊടുത്തായിരിക്കും ആംബുലൻസിൽ അവർക്ക് ഇത് കൊടുത്തിട്ടുള്ളെ അപ്പോള് അവര് അതിൻറ്റേതായ ഒരു ഇത് ഞങ്ങളോടും കാണിക്കണം